എനിക്ക് സൈക്കിൾ കിട്ടിയതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അച്ഛൻ സൈക്കിൾ മേടിച്ചു തന്നത് സൈക്കിൾ മേടിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ കരഞ്ഞു പറഞ്ഞിട്ടാണ് എനിക്ക് സൈക്കിൾ മേടിച്ച് തന്നത് സൈക്കിൾ മേടിച്ചു തന്നത് എങ്ങനെയാണ് എന്നു വെച്ചാൽ വീടിൻ്റെ പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ് വാങ്ങാൻ പോയപ്പോഴാണ് സൈക്കിൾ മേടിച്ചു തന്നത് അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചാണ് സൈക്കിൾ കിട്ടിയത് പിന്നെ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് പോയത് സ്കൂളിലേക്കാണ് സ്കൂളിൽ പോവാൻ കുറച്ച് വെല്ലുവിളി ആയിരുന്നു കാരണം എന്നു വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിടില്ല പിന്നെ വണ്ടിയുണ്ടാവും റോട്ടിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കുറേ പിന്തിരിപ്പിച്ചായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ട്ടപ്രകാരം രാവിലെ എടുത്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത് അതും കുറെ കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേറ്റത്തൊക്കെ ചവുട്ടി കേറണം ഭയങ്കര വലിയ കേറ്റമൊക്കെയാ ചവുട്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് നപ്പോൾ രാവിലെ കുറച്ചു നേരത്തെ പോയാലാണ് അവിടെ എത്തുകയുള്ളൂ ഇല്ലെങ്കിൽ ബസ്സിലൊക്കെ ഞാൻ ആദ്യം ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നേ പിന്നെ സൈക്കിൾ എടുത്ത പിന്നെ സൈക്കിളിൽ തന്നെയായി പോക്ക് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വൈറ്റാണല്ലോ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈറ്റുള്ള ഒരു സംഭവമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത് എല്ലാവരും സൈക്കിളിനെ ഭയങ്കര ആരാധിക്കുകയും ഇപ്പോഴാ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ സൈക്കിളൊന്നും വേണ്ട എല്ലാവർക്കും ബൈക്കിലാണ് കാര്യം പിന്നെ ഇതാണ് എൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതാണ് ഉണ്ടായത് വീട്ടിൽ നിന്ന് വിടാണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തം സൈക്കിൾ എടുത്തിട്ട് അങ്ങ് പോയി ഇതാണ് എൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതാണ്